ഇവിടെ മരണം മരണം നടക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാരണം എന്തുവാ അത് അറ്റാക്കും അങ്ങനെയുള്ള ആയിട്ടുള്ള മരണങ്ങൾ കൂടുതൽ പിന്നെ പ്രായമായിട്ടുള്ളവർ ആയിട്ടുള്ളവരുടെ മരണം അങ്ങനെയുള്ള മരണങ്ങളാണ് കൂടുതൽ അല്ലാതെ അല്ലാതെയുള്ള മരണങ്ങൾ പിന്നെ അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള മരണങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയത്തക്ക മരണങ്ങളായിട്ടുള്ള പറയാനുള്ള പ്രധാന പ്രത്യേക കാരണങ്ങളൊന്നുമില്ല അറ്റാക്ക് വന്ന് പ്രായം ചെന്നും മരിച്ചവരുമൊക്കെയാണ് ഒരുപാട് പേർ ശിശു മരണ നിരക്ക് ശിശു മരണ നിരക്ക് ഉയർന്ന് അങ്ങനെ ഉയർന്നിട്ടൊന്നുമില്ല അവർ ശിശുക്കൾ അവരൊക്കെ നല്ല രീതിയിലാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ശിശു മരണ നിരക്ക് ഇല്ല കുഞ്ഞുങ്ങളെയൊക്കെ അത്ര സംരക്ഷണം നല്ല രീതിയിലാണ് അവരെ പരിപാലിച്ച് സംരക്ഷിക്കുന്നത് പിന്നെ ഒരുപാടും പിന്നെ ഓരോ ഗാർഹിക പീഡനവും അങ്ങനെയുള്ള ഉള്ള മരണങ്ങളും ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക പ്രധാനപ്പെട്ട ഒരുപാട് മരണങ്ങളൊന്നും അങ്ങനൊന്നും നടന്നിട്ടില്ല ശിശുമരണ നിരക്കൊക്കെ കുറവാണ് വാക്സിനുകളൊക്കെ ലഭ്യമാണ് അംഗനവാടികൾ വഴി എല്ലാവർക്കും വാക്സിനുകൾ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ കൊച്ചു കുട്ടികൾക്ക് അതുപോലെ പതിനെട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ അംഗനവാടി വഴി പോഷകാഹാരങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് വാക്സിനുകളെല്ലാം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ പതിനെട്ട് വയസ്സ് വയസ്സ് തികയുന്നത് വരെ പെൺകുട്ടികൾക്ക് അംഗനവാടികൾ മുഖേനെയൊക്കെ അവർക്ക് നല്ല പോഷകാഹാരങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ ഒത്തിരി അവർക്ക് രി ഒരുപാട് നല്ലൊരു നല്ല നല്ല പോഷകാഹാരങ്ങളൊക്കെ ഈ സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാന്ന് ഒക്കെ പറയാനൊന്നും ഇപ്പം ഞാനത് ഓർക്കുന്നില്ല എന്തായാലും എല്ലാ രീതിയിലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായം ചെന്നവർക്കും എല്ലാം നല്ല രീതിയിൽ സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ ഒരു വിധം നമ്മുടെ പഞ്ചായത്തും അധികൃതരും എല്ലാം ചേർന്ന് അതെല്ലാം നടപ്പിലാക്കുന്നുണ്ട് സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് സൈക്കിളില്ലാത്ത കുട്ടികൾക്ക് സൈക്കിളുകൾ കൊടുക്കുകയും അവർക്ക് പുസ്തകങ്ങൾ ഇല്ലാത്തവർക്ക് പുസ്തകങ്ങൾ കൊടുക്കേം അങ്ങനെ ഒത്തിരി നല്ല സഹായങ്ങൾ ഒക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ നാട്ടിലെ ജനപ്രതിനിധികളും എല്ലാവരും അവർക്ക് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇതേ കുറിച്ച് ഇനി എന്തോ പറയാനാ ഒന്നും ഒന്നും ഒന്നും ഓർമ്മ വരുന്നില്ല എല്ലാം എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് മനസ്സിൽ തെളിയുന്നില്ല പ്രധാന കാരണം പ്രായം പ്രായമായിട്ടുള്ളവരൊക്കെ മരണങ്ങൾ അല്ലാതെ പ്രത്യേകിച്ച് മരണത്തിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള കരണങ്ങളൊക്കെ ഉളളൂ വാക്സിനുകളൊക്കെ എല്ലാ രീതിയിലും എല്ലാം ലഭ്യമാണ് അവർ അംഗനവാടി വഴി എല്ലാം ഒക്കെ ഇത് വാക്സിനുകളൊക്കെ എല്ലാവർക്കും നൽകുന്നുണ്ട് മുതിർന്നവർക്കും പ്രായം ചെന്നവർക്ക് കുട്ടികൾക്കും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും എല്ലാം എല്ലാ രീതിയിൽ എല്ലാ വാക്സിനുകളൊക്കെ അവർ നൽകാറുണ്ട്